ഇതെങ്ങട്ട് പോകണത് ഇതെങ്ങട്ട് പോകണ ബെസ്സാണ് അയ്യോ എനിക്ക് കോയിക്കോട്ട്ക്ക് ഞാൻ കോഴിക്കോട്ക്ക് കയറിയതാണല്ലോ ആ വണ്ട് ആ അപ്പം ഞാൻ ഇനി എന്താ ചെയ്യാ അപ്പം ഞാനെന്താ ചെയ്യാ

ആ ആ മഞ്ചേരിക്കെപ്പളാ ബെസ്സ്

എത്ര രൂപയാവും

എന്നാൽ നെക്സ്റ്റ് സ്റ്റോപ്പിലെറക്കിയാൽ മതീട്ടൊ

ആ ഓക്കെ ശരീട്ടാ